നവജാതശിശുവിന് അതിൻ്റെ ആദ്യ വർഷത്തില് അനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ആചാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഓരോ മതത്തിനും അതിൻ്റേതായ ആചാരങ്ങളാണുള്ളത് ഇപ്പോള് ക്രിസ്ത്യൻ മതത്തില്പ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മൂന്ന് മാസം അല്ലെങ്കില് മൂന്ന് മാസത്തിന് മുന്നെയും അല്ലെങ്കില് ഒരു വർഷത്തിന് താഴെയും പ്രായമുള്ള കുട്ടികൾക്ക് മാമോദീസയാണ് ആദ്യം നൽകുന്നത് അതിന് ആ കുട്ടികളുടെ മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അടുത്ത ബന്ധുക്കളും കുട്ടിയെ ദേവാലയത്തില് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് വൈദികൻ കുട്ടിക്ക് മാമോദീസ നൽകുകയുമാണ് ചെയ്യുന്നത് എന്നാല് ഹിന്ദു ആചാരപ്രകാരം കുട്ടിക്ക് ഇരുപത്തിയെട്ടുകെട്ട് എന്നൊരു ചടങ്ങാണ് നടത്തുന്നത് കുട്ടി ജനിച്ച് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാകുന്ന സമയത്ത് കുട്ടിക്ക് ഇരുപത്തിയെട്ട് കെട്ട് അല്ലെങ്കില് നൂലുകെട്ട് എന്നുള്ള പേരിലും ഇതറിയപ്പെടുന്നുണ്ട് അതിനുശേഷം ഒരു വയസ്സാകുമ്പോള് കുട്ടിയെ ഏതെങ്കിലും അമ്പലത്തില് കൊണ്ടുപോയി ചോറൂണ് നൽകുന്ന ഒരു പാരമ്പര്യവും ഹിന്ദു മതവിഭാഗത്തില് ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഓരോ മതവിഭാഗത്തിലും അവരുടെ മതത്തിനനുസരിച്ചുള്ള ചടങ്ങുകളാണ് നവജാതശിശുവിന് നൽകുന്നത് മുസ്ലിം മതസമൂഹത്തില് കൃത്യമായിട്ടൊരു ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവ് എനിക്കില്ല അപ്പോള് ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദൂസിൻ്റെയും ഇടയില് ഇങ്ങനെ രണ്ട് ചടങ്ങുകളാണ് നവജാതശിശുകൾക്ക് വേണ്ടിയിട്ട് അവര് ചെയ്യാറ്